തീർച്ചയായും ബോളിവുഡ് ടോളിവുഡ് എന്നിവിടങ്ങളിലെ ഫാഷൻ ട്രെൻഡുകള് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ വസ്ത്രധാരണത്തെ നല്ല രീതിയില് ബാധിച്ചിട്ടുണ്ട് കാരണം നമ്മള് എന്റെ നാട്ടില് ഇപ്പോളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് ആ സിനിമയിലെ നടനോ നടിയോ ധരിച്ച വസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അടുത്ത ഏതെങ്കിലും ആഘോഷകാലത്ത് വസ്ത്രങ്ങളിറങ്ങുക അതായത് ഉദാഹരണത്തിനാണെങ്കില് ഇപ്പോള് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമ ഏതെങ്കിലും എടുക്കുകയാണെങ്കില് ആ സിനിമയിലെ നായിക ഇട്ടിട്ടുള്ള വസ്ത്രം അപ്പോള് ആ വസ്ത്രത്തിൻ്റെ പേര് തന്നെ ആ സിനിമയുടെ പേരാണ് വരുന്നത് അതായത് ഉദാഹരണത്തിന് നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയില് മോഹന്ലാല് ധരിച്ചിട്ടുള്ള വെള്ള ഷര്ട്ട് അത് നമ്മള് എമ്പുരാന് ഷർട്ട് എന്നുപറഞ്ഞിട്ടാണ് അതിനെ വില്പ്പനയ്ക്ക് നമ്മള് വെയ്ക്കാറ് എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെട്ടിട്ട് വസ്ത്രധാരണത്തില് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മോഹലാലിന്റെ വസ്ത്രധാരണം എനിക്ക് പൊതുവെ വളരെ ഇഷ്ടം തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ കുർത്തയും മുണ്ടുമിട്ടിട്ടുള്ള ആ ഒരു ലുക്ക് ഉള്ള എല്ലാ സിനിമകളും എൻ്റെ ഫേവറേറ്റാണ് അദ്ദേഹത്തിന് കൂടുതല് ഭംഗി എനിക്ക് തോന്നിച്ചിട്ടുള്ളതും ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തില്

ഞാൻ ഏറ്റവും കൂടുതല് കണ്ടിട്ട് ആ ഒരു ചെയ്തുനോക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് മൈഥിലി ധരിച്ചിട്ടുള്ളൊരു മിഡ്ഡിയുണ്ട് അതില് ഒരു പാട്ട് സീനിലാണ് ഈ വസ്ത്രം ധരിച്ചിട്ടുള്ളത് അത് അന്ന് കണ്ടപ്പോള് മുതല് എനിക്ക് അത് അതുപോലത്തെ ഒരെണ്ണം വേണമെന്ന് ഭയങ്കരം ആഗ്രഹമായിരുന്നു പക്ഷെ അതിലുള്ളത്രയ്ക്ക് ഫ്ലെയറുള്ളത് നമുക്കന്ന് അവൈലബിളായിരുന്നില്ല പക്ഷേ ഇന്ന് പല ഫാഷൻ ഡിസൈനര്മാരും ഇത് ചെയ്യുന്നുണ്ട് ഭയങ്കരം ഭംഗിയാണത് കാണാൻ ഒരുപാട് മെറ്റീരിയൽ ഇതിനാവശ്യമാണ് എന്നിരുന്നാലും ആ ഒരു ഡ്രെസ്സിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് വേറെ നമ്മളൊന്നിനും കിട്ടുന്നില്ല അപ്പോള് അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം സിനിമയിൽ നിന്ന്